ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോൾ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടങ്കിൽ ഇപ്പോൾ നമ്മള് വെജിറ്റബിൾ സ്റ്റൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും പിന്നെ അതുപോലെതന്നെ രസം ഉണ്ടാക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴും ഞാൻ കൂടുതലായിട്ടും കുരുമുളക് പൊടി യൂസ് ചെയ്യും എല്ലാത്തിനും കുരുമുളക് പൊടിയെന്നു പറഞ്ഞാൽ നമുക്ക് നല്ലതാണ് നമ്മുടെ ശരീരത്തിനും നല്ലതാണ് ഇപ്പോൾ ഗ്യാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്ക് ഗ്യാസ് ഒന്നും ഉണ്ടാവില്ല പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കില് രസം കൂടുതലായിട്ട് വയ്ക്കും രസം കൂടുതലായിട്ട് വയ്ക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രസത്തില് വെളുത്തുള്ളിയും കുരുമുളകുപൊടി ഒക്കെ ഇട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് കാര്യങ്ങൾ അതായത് നമുക്ക് അതായത് എന്തെങ്കിലും ഫുഡ് കഴിച്ചതിൻ്റെ വയറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറിക്കിട്ടും നമുക്ക് നല്ല ഒരിതാണ് നമുക്ക് അതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല വയറുവേദന ഗ്യാസ് നെഞ്ചെരിച്ചില് പിന്നെ ബാത്ത് റൂമിൽ പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതലായിട്ട് കുരുമുളകുപൊടി എല്ലാത്തിലും ചേർക്കാറുണ്ട് ലേശം ലേശം അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതാണ് കൂടുതലും അങ്ങനെയൊക്കെയാണ് ചേർക്കാറ് എന്റെ രഹസ്യ ചേരുവാന്ന് എനിക്ക് അത് പറയാൻ പറ്റില്ല പിന്നേയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് അതാണ് കൂടുതലായിട്ട് ഞാൻ അതാണ് ചേർക്കാൻ ശ്രമിക്കാറ്